നമ്മുടെ ഗ്രാമ പ്രദേശത്തെ മുമ്പ് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്കു മുമ്പ് വരെ എല്ലാത്തിനും നമ്മുടെ വീടുകളിൽ തന്നെ മരുന്ന് ഉണ്ടാകും ഇപ്പോൾ ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് ഇപ്പോൾ ജലദോഷം പനി തൊണ്ടവേദന കഫക്കെട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് അത്യാവിശ്യം എല്ലാ ചെറിയ അസുഖങ്ങൾക്കും മരുന്ന് അത് പച്ചമരുന്ന് ആയിട്ടും അല്ലെങ്കിൽ വീട്ടിലത്തെ എന്തെങ്കിലും കുറുക്കു വിദ്യ ആയിട്ടൊക്കെ മരുന്നുണ്ടാകും ഇപ്പോൾ നമ്മൾ തൊണ്ടവേദന തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അധികം വലിയൊരു ഇപ്പോൾ നല്ല തൊണ്ട വേദനയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു മരുന്ന് ഉണ്ടാകും അത് ചെറുതായിട്ട് പ്രശ്നമുള്ളൂ സൗണ്ട് ചെറിയ ഒരു വേദന അങ്ങനെയാണ് പറഞ്ഞാൽ ഓരോ ഓരോ രീതിയിലുള്ളതിനും ഓരോ ഓരോ മരുന്നു പറയും ഇപ്പോൾ ആദ്യം നമ്മൾ നോക്കുകയാണെന്ന് പറയുമ്പോൾ ചൂടു വെള്ളം പിടിക്കാൻ പറയും ചൂടു വെള്ളം നമ്മളിങ്ങനെ തൊണ്ടയിൽ ഇട്ട് ആ മറ്റേ ഗാർ ഗുളിക അങ്ങൻത്തെ ഒരു പരിപാടിയുണ്ട് അപ്പോൾ അതിങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ തൊണ്ടയിൽ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഇപ്പോൾ കരടോ അല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഈ അണുക്കൾ വന്നിട്ട് അങ്ങനെ എന്തെങ്കിലും ആകും ചിലപ്പോൾ അപ്പോ ചൂടു വെള്ളം കുറച്ചു നേരം പിടിച്ചു കഴിഞ്ഞാൽ അതുപോകും അത് മാറിയില്ല എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപ്പിട്ട് പിടിക്കും ഉപ്പിട്ട് ചൂടു വെള്ളം പിടിക്കുക അതേപോലെ അതും കുറച്ചുനേരം ചെയ്തിട്ട് അതും മാറിയില്ല പറഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കുകയാണ് പറയുമ്പോൾ ഇപ്പോൾ മറ്റേ നമ്മൾ ഉപയോഗിക്കണത് തൊണ്ട വേദനയ്ക്ക് ഈ മറ്റേ ചുക്ക് ചുക്ക് കാപ്പി വെച്ചു കുടിക്കൽ ചുക്ക് കാപ്പി വെച്ച് കുടിച്ച് അതായത് അതുകൊണ്ട് നമുക്ക് ഏകദേശം മിക്കവാറും എന്തായാലും തൊണ്ടവേദന പോയി പോയിട്ടുണ്ടാവും ചുക്ക് കാപ്പി വെച്ചിട്ട് അത് ചുക്ക് പിന്നെ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ചായപ്പൊടിയിൽ ചുക്ക് ഇട്ടിട്ട് നല്ലോണം തിളപ്പിക്കും നല്ലോണം തിളപ്പിച്ചിട്ട് അതിൻ്റെ ആവി കറക്ടായിട്ട് അടിക്കുക എന്നിട്ട് അത് ആ ചൂടോടെ ആ കറക്റ്റ് ഒരു കുടിക്കാൻ പറഞ്ഞ ചൂടോടെ നല്ല രീതിയിൽ അത് കുടിച്ച് കഴിഞ്ഞാൽ ഏകദേശം എല്ലാ തൊണ്ട വേദനയും സാധാരണ മാറും ഇതെല്ലാം കഴിഞ്ഞിട്ടും മാറിയില്ല പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്തു നിന്ന് ആവി പിടിക്കല് ഉപ്പും മറ്റ് നമ്മളെ ചുടുവെള്ളവും വെച്ചിട്ട് ഒരു പുതപ്പൊക്കെ പുതച്ച് ഡയറക്ട് ആയിട്ട് ആവി നമ്മുടെ തൊണ്ടയിലേക്ക് അടിക്കുന്ന രീതിയിൽ കുറച്ചു നേരം ആവി പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും തൊണ്ടവേദന മാറും ഇങ്ങനത്തെ ഒക്കെയാണ് നമ്മൾ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വീട്ടു വൈദ്യങ്ങൾ എന്ന് പറയണത് അല്ലെങ്കിൽ പിന്നെ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിക്സ് ഇപ്പോഴത്തെ ഉള്ളതാണ് ഇപ്പോൾ ഈ വിക്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് വിക്സ് വിക്സ് ഇട്ടിട്ട് ആവി പിടിക്കൽ പിന്നെ പിന്നെ എന്താണ് ആ പിന്നെ മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാണ്ട് പിന്നെ പച്ചമരുന്ന് ആയിട്ട് ഒരു രണ്ടു മൂന്നു കാര്യങ്ങൾ ഒക്കെ ഉണ്ട് പച്ചമരുന്ന് ഇപ്പോൾ നമ്മൾ ആ ഇവിടെ പോയി കഴിഞ്ഞാൽ വൈദ്യന്മാരെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ഒരു ചെറിയ മരുന്നും പരിപാടിയൊക്കെ ഉണ്ട് പക്ഷേ അത് എങ്ങനെയാണെന്ന് കറക്ടായിട്ട് അറിയില്ല എന്നാലും അവരേലും ഒരു പൊടിക്കൈ ഉണ്ട് ആ അവരുടെ കയ്യിൽ ഒരു ഈ ഔഷധം അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഇപ്പോൾ അതിനെ കുറിച്ചിട്ട് ഇപ്പോൾ ഔഷധം അല്ല എന്താ പറയുക അതിൻ്റെ രസായനോ അങ്ങനെ എന്തൊക്കെയോ ഒരു സംഭവം ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് അവർ അവർ തരുമ്പോൾ അത് ഒരു ഗ്ലാസ് അര ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ അത് സെറ്റ് ആകും